മാധ്യമങ്ങളില് കാണുന്ന കാണിക്കുന്ന പരസ്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ചില പ്രോജക്റ്റുകള് നല്ല ഫലവത്തായിട്ടുള്ളതാണ് ചില പ്രോജക്റ്റുകള് ഒന്നിനും കൊള്ളാത്തവയാണ് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് മുട്ടുവേദനയ്ക്ക് വേണ്ടിയിട്ട് പരീക്ഷിച്ചു നോക്കിയത് ഒന്നും ഒരു ഫലവത്തായില്ല പക്ഷേ ചിലതു നല്ല ഫലവത്തായിട്ടും ഉപയോഗപ്രദം ആയെന്നും പലരും പറയുന്നുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് എന്താണെന്ന് പറയാനായിട്ട് ചില പ്രൊഡക്റ്റുകള് നമ്മളുപയോഗിച്ചു ഇപ്പോള് പേസ്റ്റ് അത് നമ്മളിങ്ങനെ കണ്ടു പരസ്യം കണ്ട് അത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പല്ലിനൊന്നും വേദനയോ കേടോ കുത്തലോ ഒന്നും ഉണ്ടാകുന്നില്ല അത് കാരണം വീണ്ടും വീണ്ടും നമ്മള് അത് ഓൺലൈൻ വഴി ആ പേസ്റ്റ് ഓർഡറെയ്ത് വരുത്തിയാണെപ്പഴും തേച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചില ചില പ്രൊഡക്റ്റുകള് നല്ലതാണ് ചില പ്രൊഡക്റ്റുകളുണ്ട് കുഴപ്പമൊന്നും ഇല്ല അതുപോലെ മുഖത്തിടുന്ന ക്രീമാണേലും ചിലതൊക്കെ നല്ലത് തന്നെയാണ് അത് ചിലരു പറയും അതിട്ടാലും അത് ചിലർക്ക് ശരീരത്തിൻ്റെ ആ ബോഡിക്കത് പറ്റാതെ കൊണ്ടായിരിക്കാം ചിലർക്ക് അത് പറ്റുന്നതാണ് അതുകൊണ്ട് നല്ലതും ഉണ്ട് ഉപകാരപ്രദം അല്ലാത്തത് ഉണ്ട് ആ അതിപ്പോള് ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോരുത്തർക്ക് പറ്റുന്ന ആ ഒരു ഇതുപോലെ വരത്തുള്ളൂ